സൈക്കിള് യാത്രയില് നമ്മള് നല്ല രീതിയില് ബോറടിപ്പിക്കുന്ന ഒന്നാണ് സൈക്കിള് യാത്രാന്നു വേണെങ്കില് പറയാം കാരണം എന്തന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മുക്ക് ദീര്ഘ ദൂര യാത്രകളിലക്കെ യാത്ര ചെയ്യേണ്ടി വന്നാല് ഈ ജീ ജാഗ്രതയും കാര്യങ്ങളൊക്കെ അത്യാവശ്യായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മള് നല്ല രീതില് ജാഗ്രതയോടെ വേണം ദീര്ഘ ദൂര യാത്രകളിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇപ്പം നമ്മള് ടയറ് കാര്യങ്ങളൊക്കെ ചെക്കെയുക പിന്നെ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ ചെക്കെയുക അങ്ങനെ പല രീതീല് നമ്മള് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടു വേണം നമ്മള് പോകാൻ വേണ്ടിട്ട് പിന്നെ മാക്സിമം നമ്മള് മെല്ലെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റര് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മക്ക് സ്പീഡില് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ നമ്മക്ക് ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡണ്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മള് നോക്കീട്ട് വേണം പോകാൻ വേണ്ടിട്ട് അപ്പം നമ്മള് നല്ല രീതീലുള്ള ജാഗ്രതയും കാര്യങ്ങളും ഒക്കെ നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് പിന്നെ നമ്മളെ മടുപ്പിക്കുന്ന കൊണ്ടാണൊന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതീല് ചിലപ്പം മടുപ്പിക്കും കാരണം ഇത്രയും ദൂരം പോകുന്ന സ്ഥിതിക്ക് നമ്മളെന്തായാലും മടുപ്പിക്ക് മടുപ്പ് എന്തായാലും ഉണ്ടാവുന്ന ഒന്നാണ്